ആ ഹലോ കാരുണ്യ സൂപ്പർ മാർക്കറ്റ് ഇത് ആരാണ്

ആ എന്തായിരുന്നു ചേച്ചി എന്തായിരുന്നു ചേച്ചി വാങ്ങിച്ചത് ആണോ ആ ചേച്ചി എപ്പോഴാണ് വന്നിട്ട് വാങ്ങിച്ചതെന്ന് പറയാൻ പറ്റുമോ സമയം ആ ഡേറ്റ് തീർന്നതാണോ ചേച്ചി ആ ഞങ്ങളെ ഇവിടെ കപ്പ് കേക്കിൻ്റെ ഒക്കെ പിന്നെ മിനിഞ്ഞാന്ന് വന്ന ഓർഡറായിരുന്നു എല്ലാം പുതിയത് കൊണ്ട് വച്ചതാണ് അപ്പോൾ അതിനകത്ത് കേട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ല ചേച്ചി ഞങ്ങളുടെ ഷോപ്പിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആരും പറഞ്ഞിട്ടില്ല കാരണം അത്രയും നല്ല ശ്രദ്ധയോടെ ആണ് ഓരോ ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ കൊണ്ട് വയ്ക്കുന്നത് കപ്പ് കേക്ക് ഒക്കെ ഞങ്ങൾ പുറത്തു നിന്ന് ഓർഡർ ചെയ്യുന്നത് ആണെങ്കിലും ആ ചിലത് എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞങ്ങൾ അത്രയും സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെ ന്ന് അറിയില്ല ആണോ ചേച്ചി ചേച്ചി അത് മൊത്തം അങ്ങനെ തന്നെ ആണോ കേടാണോ ആ അയ്യേ അങ്ങനെ ഒന്നും പറയല്ല ചേച്ചി നമ്മൾ അത്രയും ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ കട നടത്തിക്കൊണ്ട് ഇരിക്കുന്നതല്ലേ ഇന്നേ വരെ ഇത് പോലൊരു പരാതി ആരും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ചേച്ചി ഇങ്ങോട്ട് വന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ച് വേറെ സാധനം മാറ്റിത്തരാം അയ്യേ ചേച്ചി അങ്ങനെ നമ്മൾ അങ്ങനെ ഒരാളെ അങ്ങനെ ആ ഇത് ഒന്നാമത് പിള്ളേർക്കെല്ലാം കൊടുക്കുന്ന സാധനമല്ലേ അങ്ങനെ മോശമായ സാധനം ഒന്നും അങ്ങനെ ഇത് വരെ ഇവിടെ കൊണ്ട് വച്ചില്ല ചേച്ചി ഇവിടെ എത്ര കാലമായിട്ട് നമ്മൾ കട നടത്തുന്നതാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഒന്നും ഇത് വരെ ആരും പറഞ്ഞിട്ടില്ല ആ അത് സാരമില്ല ചേച്ചി ചേച്ചിക്ക് ഇങ്ങനെ പറ്റിയത് എന്താണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം ചേച്ചിക്ക് ഈ സാധനം തിരിച്ച് തരാൻ വേണ്ടിയിട്ട് വരാൻ പറ്റുമോ ഇന്ന് ഇത് രാത്രി എട്ടര വരെ ഓപ്പണായിട്ടുണ്ട് ചേച്ചി ആ അതിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സാധനം വേറെ മാറ്റിത്തരാം ആ ചേച്ചി ഏതായാലും പറഞ്ഞത് നന്നായി നമ്മൾ അത് ഇനി ഇങ്ങനത്തെ തെറ്റ് ഒന്നും വരുത്താതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കാം ഇത് എത്ര രൂപൻ്റെ സാധനമായിരുന്നു ചേച്ചി ഇത് ആ ആണല്ലേ ആ അത് പിന്നെ വേറെ ഞങ്ങൾ ഈ ഇല്ല പിന്നെ ബേക്കറി പ്രൊഡക്റ്റ് ഇത് സാധങ്ങൾ എല്ലാം വേറെ കടയിൽ നിന്ന് ഓർഡറ് വേറെ ഈ വീട്ടിൽ നിന്ന് ഓർഡറ് എടുക്കുന്നുണ്ട് ചെറിയ വ്യവസായങ്ങളുള്ളവർക്കും ഒരു ഇതായിക്കോട്ടേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കും ഏച്ചി ആ നമ്മൾ തന്നെ ആക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന സാധനങ്ങളെ നമ്മൾ പരമാവധി ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു സാധനങ്ങളും നമ്മളെ കടയിൽ ഇത് പോലെ ഉള്ള ഭക്ഷണങ്ങളൊന്നും വച്ച് ഇരിക്കില്ല അതിന് മുന്നേ എല്ലാം തന്നെ വിറ്റ് ചിലവാക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടേക്കെങ്കിലും മാറ്റും നമ്മളെ കടയില് വിൽക്കാൻ വേണ്ടിയിട്ട് അത് വയ്ക്കില്ല നമ്മൾ ഭക്ഷണ സാധനം അല്ലേ നമ്മൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചേച്ചി ആ ശരി ചേച്ചി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ ഇനി ഇനി ഇത് ഒരു തെറ്റിദ്ധാരണ വരുത്താതെ നമ്മൾ അത് ആ നല്ല പോലെ തന്നെ കൈകാര്യം ചെയ്തോളാം ചേച്ചി നാളെ ഒരു എട്ടരക്കുള്ളിൽ ചേച്ചി ഒന്ന് ചേച്ചി വീട് ഇവിടെ അടുത്ത് തന്നെയാണോ ആ അല്ലേ അപ്പോൾ ആ ഇന്ന് ഒരു വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിക്കുള്ളിൽ ചേച്ചിക്ക് വന്ന് കഴിഞ്ഞാൽ ഈ സാധനം വേറെ കപ്പ് കേക്ക് മാറ്റിത്തരാം ആ അത് നമ്മൾ ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി നമ്മൾ അത്രയും കാര്യമായിട്ട് ചെയ്യുന്നതല്ലേ സാരമില്ല കപ്പ് കേക്ക് വേണ്ട നമ്മൾ വേറെ ആ പൈസൻ്റെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് അടുക്കളയിലേക്കു എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ നോക്കി എടുത്തോ അത് കുഴപ്പമില്ല നമ്മൾ ഈ കൊണ്ട് വന്ന സാധനങ്ങൾ മൊത്തം നമ്മൾ കൊണ്ട് വന്ന സാധനങ്ങൾ മൊത്തം കപ്പ് കേക്കിൻ്റെ സാധനങ്ങൾ മൊത്തം അവർക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ ഉള്ള പരിപാടി നമ്മളെടുത്തോളാം ആ ചേച്ചി അത് പേടിക്കണ്ട ഇനി അങ്ങനെ ഒരു ഒരു പരാതി നമ്മളെ അടുത്തു നിന്ന് ഒരു ഒരു തെറ്റ് പറ്റാതെ നമ്മൾ നോക്കിക്കോളാം പരമാവധി ആ ശരി ചേച്ചി ആ ഓക്കേ താങ്ക് യു